കഴിഞ്ഞ വർഷങ്ങളില് വിനോദം എങ്ങനെയാണ് മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാല് എന്താ ആദ്യത്ത പോലെത്തന്നെയാണ് ആളുകൾ ഇപ്പോഴും ആളുകൾക്ക് മാറ്റം ഒന്നുമില്ല ആളുകൾ പാട്ട് കേട്ടാൽ നൃത്തം കളിക്കുന്നു പാട്ടിന് നല്ല പാട്ടുകളോ നല്ല പിന്നെ ഡി ജെ സോങ് അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ആ അങ്ങനത്തെ പാട്ടുകൾ ഒക്കെ കേട്ടാൽ തുള്ളാത്ത ആളുകൾ ഇല്ല ടിവി ടിവിയിലും കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും ഫോണിൽ അയാൽ തന്നെ അവര് നല്ല നല്ല പാട്ടുകൾ നോക്കിയാണ് ഇടുന്നത് നല്ല പാട്ടുണ്ടെങ്കില് ഏത് തു ഡാൻസ് കളികാത്ത ആളും ഇപ്പോൾ ഡാൻസ് കളിക്കും അതാണ് ഇപ്പൊത്തേത് വയസ് വയസ് ആയവർക്കോ മുതിർന്നവർക്കോ കുട്ടിക്കളൾക്കോ യുവാക്കൾക്കോ അങ്ങനെയൊന്നും ഇല്ല ഏത് കാലഘട്ടത്തിൽ ഉള്ളവരാണെങ്കിലും ഇപ്പോൾ പാട്ട് കേട്ടാൽ ഡാൻസ് കളിക്കാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും ഇപ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹരമാണ് ഇപ്പൊ തന്നെ കുട്ടികളെ വലിയ വലിയ അമ്മമാര് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ വിടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ കാലത്ത് ആദ്യത്തെ കാലത്തെക്കാളും ഇപ്പോൾ കുറെ മാറിയിട്ടുണ്ട് ആദ്യം റേഡിയോനെ ആശ്രയിച്ച് ഇരിക്കുമായിരുന്നു ഇപ്പോഴാണെങ്കിൽ റേഡിയോ അല്ല ടിവി കംപ്യൂട്ടർ ഇപ്പോൾ ഫോണിൽ ആണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് തന്നെ ഒരുപാട് സോങ്ങുകളാണ് അവര് ഇറക്കിട്ടുള്ളത് അതൊക്കെ അതൊക്കെ കേട്ടാൽ തുള്ളാത്ത ആൾക്കാര് ആരാ ഉള്ളത് ഇപ്പോൾ